ആ ചേച്ചി വരൂ ഇരുപത്തിയഞ്ച് ലക്ഷത്തിനു വീടോ അയ് ഈ അതായത് നിങ്ങടെ ബഡ്ജറ്റ് ഇരുപത്തിയഞ്ച് ഓക്കെ വീടിൻ്റെ എങ്ങനെയാ കാര്യങ്ങളൊക്കെ എങ്ങനത്തെ വീടാണ് പഴയ മോഡൽ വേണോ പുതിയ മോഡൽ വേണോ അതൊന്നും പറയാണ്ട് ഓക്കെ അതിപ്പോൾ ടൗൺ ഏരിയയിൽ വേണോ അതോ കുറച്ച് ഗ്രാമത്തിലാണോ അതോ അത്യാവശ്യം മോസ് ആ ഉള്ളിലേക്കാണോ ആ ഇരുപത്തിയഞ്ച് ലക്ഷം അല്ലേ എമൗണ്ട് ചെറിയ വീട് മതിയോ എങ്ങനെയാണ് നിങ്ങളെത്ര ആളുണ്ടാവും ആ അല്ല ഈ കിച്ചണും കാര്യങ്ങളൊക്കെ വേണോ എങ്ങനെയാണ് അതോ വീട് വീടെന്നു പറയാൻ പറ്റില്ല ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ ആ അങ്ങനത്തെ വേണോ അത് നിങ്ങൾ വരില്ലയെന്നു പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണ് എന്താണ് അല്ല അത് ഓക്കെ അല്ല നമ്മളിപ്പോൾ ഈ അധികം താമസമൊന്നും ഉണ്ടാവില്ലെന്നു പറഞ്ഞില്ലേ അപ്പോൾ നമുക്ക് അടുക്കള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണ്ടി വരുവോ അതോ ജസ്റ്റ് വന്ന് താമസിക്കാനാണോ പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് റൂമുകൾ മാത്രം അങ്ങനത്തെ ആ ഓക്കെ ഓക്കെ ഓക്കെ എപ്പോൾ

ആ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് കിണറാണോ വേണ്ടത് ബോർവെല്ലാണോ വേണ്ടത് കിണർ സ്ഥലം വേണോ ബേക്കിൽ വേണം അല്ലേ അതായതിപ്പോൾ നമ്മളൊരു ഒന്നു രണ്ട് പ്ലോട്ടും വീടുള്ള പ്ലോട്ടുകളുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മരങ്ങളുള്ള ടൈപ്പ് വേണോ അതോ അതായത് കുറച്ച് മരങ്ങളുള്ള ടൈപ്പ് ഒരെണ്ണം നമ്മുടെ കൈയ്യിൽ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലത്യാവശ്യം ഒരു ബേക്കിലൊരു നാലഞ്ച് മരങ്ങളുണ്ട് ഫ്രണ്ടിൽ കുറച്ച് തെങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വെളിച്ചം അത്രയ്ക്കില്ലാ എന്നു പറഞ്ഞാൽ തീരെ ഇരുട്ടെന്നല്ല കുറച്ച് വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ വീടാണോ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഒരെണ്ണം മതിയോ ആ ഇതിനിപ്പോൾ ഒരു പെട്ടെന്ന് അതായതിപ്പോൾ നിങ്ങളുടെ റെഡി ക്യാഷാണെങ്കിൽ നമുക്കൊരു ഇരുപത്തി രണ്ടിലൊക്കെ അവരെക്കൊണ്ട് റെഡിയാക്കാൻ പറ്റും ആ നിങ്ങൾ നേരിട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് എപ്പോഴാണ് ഫ്രീ പറഞ്ഞാൽമതി നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ പോവാം നാളെ വേണെങ്കിൽ നാളെ പോവാം അതിൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെ വീടും കാര്യങ്ങളും അപ്പോൾ അവരത് വിറ്റിട്ട് ഇപ്പോൾ വേറൊരു സ്ഥലത്തൊരു പ്ലോട്ട് മേടിക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അവരെ ഫണ്ട് കുറച്ച് ഷോർട്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ ഇത് ഇപ്പോൾ തൽക്കാലം പെട്ടെന്ന് നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ റെഡി ക്യാഷ് കൊടുക്കാമെന്നു പറഞ്ഞാൽ അവർക്ക് ഓക്കെയായിരിക്കും ആ ആ എപ്പോഴാണ് മേഡത്തിന് സൗകര്യം ആ ഓക്കേ അപ്പോൾ ഒന്ന് എൻ്റെ നമ്പറിലൊന്ന് വിളിച്ചാൽമതി ഞാൻ നമ്പർ തരാം നമ്പറിലൊന്നു വിളിച്ചാൽമതി ആ അവരോട് സംസാരിക്കാനൊന്നുമില്ല നമുക്കറിയണ ആൾക്കാരാണ് അവർ ഇപ്പോൾ ഇതാ കുറച്ച് നേരത്തെ കൂടി വന്നു പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ ഒരാളെ എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുവോന്നുള്ളതേ അപ്പോൾ അവർക്ക് അവരുടെ ഭാഗത്തു നിന്ന് കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ കച്ചറ പറഞ്ഞുകഴിഞ്ഞാൽ ഇതു കുറച്ച് ഒഴിഞ്ഞിട്ടുള്ള ഏരിയയാണ് ഇപ്പോൾ അടുത്ത് വീടെന്നു പറയുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വീടുകൾ കുറച്ച് വെൽ സെറ്റിൽഡായിട്ടുള്ള രണ്ടു മൂന്ന് ഫാമിലികളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നേ കോളനികളും അങ്ങനത്തെ അതൊന്നും അല്ല കുറച്ചും കൂടി നല്ലൊരു ബെറ്റർ ഓപ്ഷനാണെന്ന് തോന്നുന്നു എനിക്കത് ആ നാളെ അപ്പോഴത് നോക്കിയിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം ഓക്കെ ഓക്കെ ഓക്കെ